ഇപ്പോഴത്തെ കാലഘട്ടത്തിനിപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ എല്ലാവർക്കും നല്ല മടിയായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം പണ്ടുകാലത്തെന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് യാതൊരു സാങ്കേതിക വിദ്യയും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കപ്പിയിട്ടൊക്കെയാണ് അന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്നത് നമ്മൾ കപ്പീം കയറൊക്കെ ഇട്ട് വേണം നമ്മൾ സ്വയമേ കോരണം അതായിരുന്നു ഇപ്പോഴത്തെ ഇത് വന്ന് വന്ന് ആർക്കും മടിയായത് കൊണ്ട് ഇപ്പോൾ പൈപ്പ് തുറന്നാൽ വരെ വെള്ളം വരുന്ന ഒരു സ്ഥിതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് പണ്ടുകാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു കിണറ്റിച്ചെന്ന് സാ വെള്ളം കോരിക്കൊണ്ടു വേണം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ നമ്മുടെയടുത്തൊന്നും കിണറില്ലെങ്കിൽ തന്നെ വേറെ സ്ഥലത്ത് പോയി കോരിക്കോണ്ട് വേണം വരാൻ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ പൈപ്പ് തുറന്നാൽ നമുക്ക് വെള്ളം കിട്ടും ഇപ്പോൾ എവിടന്നാണെൽ ഇപ്പോൾ വിളിച്ച് പറഞ്ഞാൽ ഒരു വണ്ടിയിലാണ് ഒരു ആൾക്കാർ കൊണ്ട് തരും ഇപ്പോൾ അങ്ങനെ ഇത് മാറിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ ഇത് നമ്മൾ ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുവാണ് കാരണം പണ്ട്കാലത്തെന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ കോരിക്കോരി നമ്മൾ ഒരു ദിവസം വേണം കുടവും നമുക്ക് അങ്ങനത്തെ ഒരു രീതിയിൽ മണ്ണ് വെള്ളത്തിന് അത്രയ്ക്ക് കീഷ് ഇതായിരുന്നു ക്ഷാമവുമായിരുന്നു ഇപ്പോഴത്തെ പറഞ്ഞാൽ അങ്ങനെയല്ല യാതൊരു ക്ഷാമവും ഇല്ലാത്ത രീതിയിലാണ് നമുക്കിപ്പോൾ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എവിടെ ചെന്നാലും കാണാം കുളവും തോടും എല്ലാം ഒഴുകുന്നത് അവർ അവിടെ കുഴിച്ചാണ് വെള്ളം എടുത്തോണ്ടിരിക്കുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു ഇതിന് ഇലക്ട്രിക് മോട്ടറും എല്ലാം വെച്ചാണ് വെള്ളം എടുക്കുന്ന സമയം നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടുകാര് ഡിജിറ്റലിൽ നമ്മുടെ വിട്ടുകാരാണേലും എല്ലാവരും അതേ ഇപ്പോഴത്തെ ഇലക്ട്രിക് മോട്ടർ വെച്ചാണ് നമുക്ക് വെള്ളം ഒരു പൈപ്പ് തുറന്നാൽ മതി നമുക്ക് വെള്ളം കിട്ടും മോട്ടർ വഴിയാണേൽ വീട്ടിലേക്ക് സുഖമായിട്ട് നിന്ന് ഒരു സ്വിച്ചിട്ടാൽ മാത്രം മതി നമുക്ക് വെള്ളം കിട്ടാൻ പണ്ട് കാലത്തിലെന്നു പറഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നു നമ്മൾ സ്വയമേ പോയി ഒക്കെ കോരിയാൽ മാത്രമെ നമുക്ക് വെള്ളം കിട്ടത്തൊള്ളു അങ്ങനൊരു സാങ്കേതിക ഇതായിപ്പോയി നമ്മുടെ ഡിജിറ്റലാക്കി മാറിയപ്പോൾ നമ്മുടെ നാട് എല്ലാം കാരണം നമുക്കിപ്പം വെള്ളം വേണമെങ്കിൽത്തന്നെ നമ്മൾ പോയി കോരണമായിരുന്നു പണ്ട്കാലത്തൊക്കെന്ന് പോയി കോരണമായിരുന്നു ഇപ്പോൾ വീട്ടിലേക്കാണേലും വേറെ സ്ഥലത്തേക്കാണ് നമ്മൾ പോയി കോരണമായിരുന്നു ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ മോട്ടർ വന്നെടുത്തോളും കാലം നമുക്ക് ഇവിടെ ഇരുന്ന് സ്വിച്ചിട്ടാമതി സാധനം നമുക്ക് വെള്ളം നിറയും നമ്മൾ ഓഫാക്കുക ഇത് മാത്രം മതി നമുക്കിപ്പോൾ ചെയ്യാൻ അതായിരിക്കണം നമ്മുടെ മോട്ടർ വെച്ചുള്ള ഇപ്പോഴത്തെ ഡിജിറ്റൽ ഇന്ത്യയെ എല്ലാരും മാറിക്കൊണ്ടിരിക്കയാണ് ഡിജിറ്റലായപ്പോഴേക്കും എല്ലാരും മാറിക്കൊണ്ടിരിക്കുവാണ് അതാണിപ്പോഴത്തെ മോട്ടർ വെച്ചുള്ള നമുക്ക് ഉപയോഗമായിട്ട് എനിക്ക് കണക്കാക്കപ്പെടുന്നത്